ഹാലോ ഇത് റോളക്സ് ഹോട്ടലല്ലേ ഞാനൊരു ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്നു വച്ചിട്ടുണ്ടെങ്കില് ഞാൻ കണിയാപുരത്തേയ്ക്ക് ആണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവിടുന്നൊരു ചെറിയ മാറ്റമുണ്ട് കാരണം എന്താന്നു വച്ചുകഴിഞ്ഞാല് ഞാനിവിടുന്ന് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടീന്നു എൻ്റെ വീട്ടിലേക്കു പോകുവാണ് അപ്പോ എന്താന്നുവച്ചാല് എനിക്ക് അങ്ങോട്ടേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് സാധനം കൊണ്ടുതരണത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ എൻ്റെ വീടെന്നു പറഞ്ഞാൽ

ഞാന് ഇവിടെ ഒരു അത്യാവശ്യകാര്യം ആയത് അത്യാവശ്യകാര്യത്തിന് അങ്ങോട്ട് പോണത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുക ഡെലിവറി അങ്ങോട്ടേയ്ക്ക് ആ അംബൂത്തിന്നു പറഞ്ഞ സ്ഥലത്തേക്ക് ചെയ്യാൻ പറയുന്നത്